എല്ലാ ദിവസവും കുറച്ച് സമയം പാട്ട് പ്രാക്ടീസെയ്യാന് വേണ്ടി മാത്രമായിട്ട് ഞാൻ മാറ്റിവെക്കാറുണ്ട് അത് മാക്സിമം കഴിവുള്ള വിധത്തില് ബ്രീത്തിങ്ങ് എന്തുവാ ശ്വാസം നിയന്ത്രിച്ച് ഹൈ പിച്ചും ലോ പിച്ചും കാര്യങ്ങളൊക്കെ കൃത്യമായെടുത്ത് കൃത്യമായ പ്രാക്ടീസുകള് കൊടുക്കുവാനും എൻറ്റേതായ രീതിക്ക് നല്ലരീതിയില് പാടാനായിട്ട് ഞാ ശ്രമിക്കാറുണ്ട് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് പ്രാക്ടീസെയ്യണം മാക്സിമം കിട്ടുന്നത്രയും സമയം പാട്ടിനുവേണ്ടി പ്രേക്ടീസെയ്യ പ്രാക്ടീസെയ്യാനായിട്ട് അപ്പെന്നാ പാട്ടുകളൊക്കെ നല്ലപോലെ കേള്ക്കുവാനായിട്ട് കൂടുതൽ ടൈം രണ്ടും മൂന്നും നാലും വട്ടോക്കെ പാട്ടുകള് കേള്ക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്